പാലക്കാട് ജില്ലയിലെ ഐതിഹ്യങ്ങൾ പറയുകയാണെങ്കിൽ ഒടിയനുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കഥകൾ പാലക്കാട് നിന്ന് വന്നതാണ് പാലക്കാട് ജില്ലയിലെ തേങ്കുറിശ്ശി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഒടിയനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പിന്നീട് ഒരു സിനിമയായിട്ടു മാറിയിട്ടുള്ളത് ഒടിയനെന്ന് പറയുമ്പോൾ വേഷം മാറി ആളുകളെ പേടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തെ അത്രയും അറിയപ്പെടുന്ന ഒരു ഇതായിരുന്നു ഒടിയനെന്ന് പറയണത് അന്നത്തെ കാലത്തൊന്നും തേങ്കുറിശ്ശിയിലും ഈ കറൻറ്റ് വൈദ്യുതി ഇല്ലാത്തതു കൊണ്ട് ആളുകളെ രാത്രികാല സമയങ്ങളിൽ പേടിപ്പിക്കുക ഓരോ വേഷം മാറി മൃഗങ്ങളുടെ ഒക്കെ ഓരോ വേഷം മാറിയിട്ട് ആളുകളെ പേടിപ്പിക്കുന്നൊരു സംഭവമായിരുന്നു ഒടിയൻ എന്ന് പറയണത് അങ്ങനെയൊരു ഐതിഹ്യം അങ്ങനെയൊരു കഥകൾ പലതും പാലക്കാടിനായിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി പുരാണമായിട്ട് കുറച്ചും കൂടി പഴയതായി നോക്കുകയാണെങ്കിൽ ആ ബ്രിട്ടീഷ്കാരുടെ കാലത്ത് അന്ന് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരിൽ നിന്നും ഒളിക്കാൻ വേണ്ടി പാലക്കാട് കോട്ട കെട്ടിയിരുന്നു ഇന്നും അത് പ്രസിദ്ധമാണ് എത്രയോ പഴക്കങ്ങൾ ചെന്ന ഒരു കോട്ടയാണ് പാലക്കാട് കോട്ട ഒരുപാട് ചരിത്ര ചരിത്രത്തെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ആ കോട്ട നമ്മളെ കൂടുതൽ അറിയുവാനും സഹായിക്കുന്നു പാലക്കാട് കോട്ടയിൽ തന്നെ ജയിലുണ്ട് കുറ്റങ്ങൾ ചെയ്യുന്നവരെ ജയിലിൽ ആക്കുവാൻ അവിടെ ഒരുപാട് ജയിലും സംവിധാനങ്ങളും കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ വേറൊരു ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് അവിടത്തെ സീതാർകുണ്ട് എന്നു പറയണ അവിടത്തെ വെള്ളച്ചാട്ടം അത് ഐതിഹ്യമായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് സീതാദേവി കുളിക്കാൻ വന്ന ഒരു സ്ഥലമായിട്ടാണ് അതിനെ ഐതിഹ്യമായിട്ട് കണക്കാക്കുന്നു അങ്ങനെ ഒരുപാട് പാലക്കാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകതകളും കാര്യങ്ങളുമുണ്ട് ഒരുപാട് മുന്നെ മുന്ന് തന്നെ രൂപീകൃതമായ ജില്ലയാണ് പാലക്കാട് അങ്ങനെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായി ഒരുപാട് ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ ചരിത്രത്തെക്കുറിച്ചുള്ള സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പാലക്കാടിനും ഉണ്ട്